നമ്മുടെ പ്രദേശമെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ തരം മത്സ്യങ്ങളെയാണ് ഐല കിട്ടും മത്തി കിട്ടും കിളിമാൻ കിട്ടും കിളിമീൻ കിട്ടും പുഴ മീനുകൾ കിട്ടും പിന്നെ ചെമ്പല്ലി കിട്ടും മാന്തൽ കിട്ടും സ്രാവ് കിട്ടും മുള്ളൻ കിട്ടും ചക്കമുള്ളൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് കിട്ടും അങ്ങനെ ഒരുപാട് തരം മീനുകൾ കിട്ടും ഏറ്റവും കൂടുതൽ എൻ്റെ ഒരിതിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തി ഐല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും മത്തിയാണ് മത്തിക്കാണല്ലോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ കൂടുതലും മത്തീ ആണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പിന്നെ അതാണ് കൂടുതൽ ചിലാവായി പോകുന്നതെന്നാണ് എൻ്റെ ഒരഭിപ്രായം പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീനും കൂടുതലും ഐല മത്തി ഐലയാണ് കൂടുതലും മത്തിനേക്കാളും ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തി വളരെ കുറവാണ് ചെറിയ മീൻ ചെറിയ മത്തി അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയെ കിട്ടുന്നുള്ളു പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങളുടെ വില എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറിൽ കൂടാണ്ട് ഒന്നും കിട്ടില്ല ഒരു കിലോന് നൂറ് നൂറ്റിരുപത് നൂറ്റൻപത് നൂറ്ററുപത് ഇരുനൂറ് ഇരുനൂറ്ററുപത് മുന്നൂറ് അഞ്ഞൂറ് ആയിരം രൂപേൻ്റേ മത്സ്യം വരെ ഉണ്ട്